ആ എനിക്ക് ഒരു വീടും സ്ഥലവും നോക്കണം ആ ഒന്ന് ഹെല്പ് ചെയ്യുവോ എനിക്ക് കുറച്ചുള്ളിക്കായിട്ടൊരു ഒരു ഫാമ് ഹൗസ് പോലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതിയും അങ്ങനത്തൊരു ഒരു സ്ഥലമാണ് വേണ്ടത്

ബഡ്ജറ്റൊരു പ്രശ്നമല്ല ബഡ്ജറ്റ് പിന്നെ നമുക്ക് സ്ഥലം ഇഷ്ടപെട്ടാൽ അതിനനുസരിച്ച് നോക്കാം ബഡ്ജറ്റൊരു വിഷയമല്ല അതെ അതെ ഒരു പഴയ ഓട് ഓടിട്ടിട്ട് നല്ല വലിയ വീട് അങ്ങനെ ഉണ്ടോ റൂമെന്ന് പറഞ്ഞാലൊരു ഒരു വലിയ വീട് ഒരു അഞ്ച് റൂമ് ആറ് റൂമ് അങ്ങനെ

പഴയ ആ മന പോലെ മനയൊക്കയില്ലേ അതുപോലെ സ്വിമ്മിംഗ് പൂള് വേണ്ട കുളം അങ്ങനൊക്കൊണ്ടാവില്ലേ എന്നു പറഞ്ഞാൽ ഒരു പഴയ പഴയ തനിമ അങ്ങനെയാണ് വേണ്ടത്

അങ്ങനെ ആ

ആ ആ ആ കാട് കാ ആ അങ്ങനത്തെ ഒരിത് തന്നെയാണ് വേണ്ടത് കാട്

രണ്ട് നില അല്ലേ ആ എത്ര റൂമ് ഓക്കെ ഓക്കെ നടുമുറ്റം അങ്ങനെ ഉണ്ടോ അല്ല ഫാം ഫാം ഹൗസ്ന്നല്ല ഒരു ഉള്ളിലേക്കൊരു വീട് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ല റേറ്റൊരു കുഴപ്പമില്ല ഓക്കെ ഓക്കെ രണ്ട് നിലയാണോ

ആ അങ്ങനത്തെ തന്നെയാണ് നോക്കണത് ആ ആ ആ ആ ആ ആ ആ അതൊന്നും ഇല്ലാല്ലേ ഓക്കെ ഓക്കെ ഓ പ്ലാവ് അങ്ങനെയല്ലേ ആ ആ ആ ആ റോഡ് സൈഡല്ലല്ലോ ആ ഓക്കെ പ്രൈവറ്റ് റോഡല്ലേ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ അങ്ങനത്തൊര് വീടുതന്നെയാണ് വേണ്ടത് ആ അത് കുഴപ്പമില്ല ആ ആ

ആ കാണാം കാണാം ഞാൻ ഈ സാറ്റർഡേ വരാം

ഓക്കെ ഈ നമ്പറില് ഞാൻ വിളിക്കാം

ഓക്കെ ഓക്കെ ഓക്കെ ബാക്കി നമുക്ക് അവിടെ വന്ന് നോക്കാം ആ ഓക്കെയാണ് ഓക്കെയാണ് ആ ഓക്കെ അതും ഇതേപോലെ ഇതേ സ്പെസിഫിക്കേഷൻ തന്നെയല്ലേ ഞാൻ പറഞ്ഞ അതേ ഇത് തന്നെയല്ലേ സ്ഥലം ഇത്തിരി കൂടുന്നല്ലേയുള്ളൂ ആ ആ ആ ആ ഈ ആ ആ നോക്കാം നമുക്ക് നോക്കാം ആ ഞാൻ ശനിയാഴ്ച് വിളിക്കാം ആ വിളിക്കാം ആ രണ്ടും നോക്കാം

ആ ഓക്കെ ഒക്കെ ആ താങ്ക്യൂ ആ ആ വിളിക്കാം വിളിക്കാം ആ ശരി